ഹലോ അഭിഷേകല്ലേ ആ ഞാന് മറ്റേ ഉജ്വലനാണ് ഉജ്വലൻ ഇല്ലേ താന് ഇന്നലെ ഒരു ഇവിടെ വന്നില്ലേ അന്ന് ഓഫീസില് ലൈസണ് ഓഫീസില്ലേ കെ എസ് ആർ ടി സി ആ അപ്പോള് ഞാന് ആ ഉദ്യോഗസ്ഥനാണ് ഉജ്വലൻ അപ്പോള് താൻ എന്തിനാണ് ഇന്ന് എന്തിനായിരുന്നു വന്നത് ഞാന് കേസ് വിട്ടുപോയല്ലോ അത് താന് ഇന്നലെ എന്തിനാണ് കെ എസ് ആർ ടി സി ഓഫീസില് വന്നത്

ആ ആ അപ്പോള് താങ്കൾക്ക് ഏത് ബസിലെ സമയമാണ് അറിയേണ്ടത് എങ്ങോട്ടേക്കുള്ള കെ എസ് ആർ ടി സി കുട്ടിക്കാനത്ത് നിന്ന് ചങ്ങനാശ്ശേരിക്കുള്ള ബസ്സാണെങ്കിൽ അത് ഞാന് പറയാം അത് എല്ലാ ദിവസവും മൂന്നുമണിക്കുണ്ട് ലക്കി ബോർഡോ എന്തോന്ന് ഓ ആ കാർഡ് അല്ലേ ഉവ്വ് അപ്പോള് ആ കാർഡ് ആ അപ്പോള് അതെക്കുറിച്ചുള്ള വിവരം എനിക്കറിയില്ല കാരണം ഞാനിപ്പോള് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ചെയ്യുന്നത്

എടോ ഇയാള് വലിയ വർത്തമാനമൊന്നും പറയേണ്ട

എടോയെടോ എടോ ഞാന് മാന്യമായിട്ടാണോ അല്ലാതെയാണോയെന്ന് താൻ തീരുമാനിക്കേണ്ട കേട്ടോ അല്ല അല്ല ചൂടായതല്ല ഞാന് അല്ല ഞാൻ പറയുന്നത് കേള്ക്കങ്ങോട്ട് ഞാൻ അഭിഷേക് പറഞ്ഞതിൽ ആണ് ഞാൻ വിളിക്കുന്നത് താൻ ഇങ്ങോട്ട് ചൂടാകേണ്ട ആവശ്യമില്ല മനസ്സിലായോ കാര്യം കാര്യം പറയുമ്പോള് അതിന്റെയൊരു മാന്യതയില് പറയണം ആണോ അപ്പോള് അഭിഷേകേ ആ ഓക്കെ ഓക്കെ അത് വിട് ഓക്കെ അത് വിട് അത് വിട് അത് വിട് അത് വിട് അത് വിട് ആ ഞാന് ഞാന് അഭിഷേക് ഞാനൊന്ന് നോക്കിയിട്ട് വിളിക്കാം കാരണം ആ സമയം സമയം എനിക്കറിയില്ലല്ലോ അതുകൊണ്ടാണ്

അപ്പോള് അഭിഷേകിന് ബസ്സിൻ്റെ സമയം ഞാനൊന്ന് വിളിച്ചുപറയാം അഭിഷേകെ ഓക്കെ ഓക്കെ അഭിഷേകെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അഭിഷേകെ ശരി